ഇപ്പം എന്നെ സംബന്ധിച്ചടത്തോളം ഞാനിപ്പോൾ അത്യാവശ്യം ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ഒരാള് തന്നെയാണ് ഞാൻ സിവിലക്കെ പഠിച്ചത് കൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് വരേനെ പറ്റി പറയാനാണേൽ ഒരുപാട് കാര്യങ്ങള് പറയാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ്ങ് ചെയ്യുമ്പോൾ അതിനു വേണ്ട പെൻസിൽസും കാര്യങ്ങളും അതായത് നിർദ്ദേശങ്ങൾ എന്നക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞു തരാൻ പറ്റും അപ്പം അതില് മെയിനായിട്ട് നമക്കിപ്പ പറയാൻ ഉള്ളത് ഓരോ ലൈൻസിനും അതിൻറ്റേതായ തിക്ക്നെസ്സും കാര്യങ്ങളൊക്കെ വേണം അപ്പം നമ്മള് ഓരോ ലൈൻസ് ഇപ്പം ഹാച്ചിങ് ആയിക്കോട്ടെ തിങ് ലൈൻസ് ഛേ സോറി തിക്ക് ലൈൻസ്സും തിൻ ലൈൻസൊക്കെ വരയ്ക്കുമബോൾ അതിൻറ്റേതായ പെൻസിൽൻ്റെ ക്വാളിറ്റി അതായത് ഇപ്പോൾ എന്താ പറയുക ഓരോ പെൻസിലിനുമില്ലേ ലെഡ്ഡിനായിക്കോട്ടെ ലെഡ് പെൻസിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ പോയൻറ്റ് ഫൈവ് പോയൻറ്റ് സെവൻ അങ്ങനക്കെ ഉണ്ട് പിന്നെ നോർമൽ പെൻസിലുകൾ ആണെങ്കി എച്ച് ബി ടൂ എച്ച് ബി അങ്ങനെ ഒരുപാട് പെൻസിലുകളിൽ തന്നെ ഒരുപാട് പെൻസിലുകള് അവൈലബിൾ ആണ് അപ്പം നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പെൻസിൽ ക്വാളിറ്റി ഒക്കെ നോക്കി മേടിച്ച് അതില് ഓരോ ലൈൻസിനും വേണ്ട തിക്ക്നെസ്സും കാര്യങ്ങളും ഹാ യാ ഹാച്ചിങ്ങിനു വേണ്ട കളേഴ്സും എല്ലാം നോക്കി അത്യാവശ്യം നല്ല രീതിയ്ക്കുള്ള പെൻസിൽസ് ഒക്കെ യൂസ് ചെയ്യുവാണങ്കിൽ തന്നെ ചിത്രം എന്താ പറയുക നമ്മള് വരയ്ക്കുന്ന ചിത്രം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയ്ക്ക് തന്നെ നമുക്കത് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കി എടുക്കാനൊക്കെ കഴിയും അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ